ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്നായിരുന്നു വേണ്ടേ എന്തായിരുന്നു വേണ്ടേത് ചുരിദാറ് ഏതാ കോട്ടനാണോ സിൽക്കാണോ ആ കോട്ടൻ്റെ സെറ്റ് വേണമെങ്കില് സെറ്റായിട്ടുണ്ട് അതെല്ലാ നമുക്ക് പീസായിട്ട് മുറിച്ചെടുക്കാനാണെങ്കില് അങ്ങനെയുണ്ട് ഏതാ നോക്കുന്നെ ഓക്കെ രണ്ടുനോ ആ രണ്ടുനോക്കാം പോരെ സിൽക്കിൻറ്റേതൂണ്ട് ഉണ്ട് രണ്ട് തരത്തിലുള്ളതുമുണ്ട് ആ നമുക്ക് ഫുൾ കൈയ്യാ തയ്ക്കുന്നതെങ്കില് കുറച്ച് രണ്ടേമുക്കാലോളം തുണിയെടുക്കണം വീതിയുള്ള തുണിയാണ് നാ നാല്പത്തി നാല്പത്തിനാലിഞ്ച് വീതി പിന്നെ മുപ്പത്തെട്ട് മുപ്പത്താറിഞ്ച് വീതി അങ്ങനെ ആ നാല്പത്തിനാലാണേലും നമ്മള് രണ്ടേമുക്കാലെടുക്കാണെങ്കില് ഫുൾ കൈയാണെങ്കില് ലെങ്ത്ത് കൂടുതല് വേണമോല്ലോ ലെങ്ത്ത് കൂടുതൽ വേണം മ്മ് സിൽക്ക് സാരിയാണ് കോട്ടൻ സാരിയുണ്ട് സിൽക്ക് സാരിയുണ്ട് ജ്യൂട്ട് സിൽക്കുണ്ട് ആ പിന്നെ നമുക്ക് നല്ല ബെഡ് ഷീറ്റുകളുണ്ട് നൈറ്റിയുണ്ട് ആ ഓക്കെയോക്കെ ആ ഓക്കെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് എന്തോ നൈറ്റി തുണിയുണ്ട് ആ ആ സാരി സ്റ്റാർട്ടിങ് ആ സ്റ്റാർട്ടിങ് വരുന്നത് മൂന്ന് എഴുനൂറ്റമ്പത് തൊട്ട് നമുക്ക് വരും ഇപ്പഴാണെങ്കില് നമുക്ക് റിഡക്ഷനുണ്ട് റിബേറ്റ് വരുന്നതുണ്ട് റിബേറ്റുള്ളെ ട്വൻറ്റി പേർസെൻറ്റേജുണ്ട് അപ്പോള് അതൂടെ കഴിയുമ്പോള് അത്രയാ ഇത് കുറഞ്ഞു കിട്ടും ആ കോട്ടൻ്റേതുണ്ട് കോട്ടൻ്റെ നല്ല സുഖമാണ് നല്ല ഇതാണ് നമുക്ക് ഉടുക്കാനും നമുക്ക് ഉടുത്തിട്ടുണ്ടെന്ന് അറിയത്തില്ല നല്ല മെറ്റീരിയലാണ് ആ ചൂടൊക്കെയുള്ള സമയത്തൊക്കെയാണേലും നമുക്ക് നന്നായിട്ട് നല്ല കംഫേട്ടബിളായിട്ടൊള്ളതുണ്ട് ആ ഉപയോഗിക്കാവുന്ന കോട്ടൻ്റെ ബെഡ് ഷീറ്റുണ്ട് സിംഗിളുണ്ട് ഫാമിലി കോട്ടനുണ്ട് ഡബിൾ കോട്ടുണ്ട് അതാവുമ്പോള് കോട്ടാകുമ്പോള് രണ്ട് ഫില്ലോ വരും സിംഗിളാകുമ്പോള് ഒരു ഫില്ലോ കവറും അങ്ങനെ ഉൾപ്പെടെവരും ആ ബെഡ് ഷീറ്റ് ആ ഷർട്ടിൻ്റെ തുണിയുണ്ട് ഉണ്ടല്ലോ ഷേർട്ടിൻ്റെ സിൽക്കുണ്ട് കോട്ടനുണ്ട് ആ കോട്ടൻ സിൽക്കുണ്ട് വൈറ്റിൻ്റെയുണ്ട് പിന്നെ നമുക്ക് പ്രിന്റഡ് സിൽക്കിൻ്റെയുണ്ട് അങ്ങനെ പല മോഡലായിട്ടുള്ളതുണ്ട് ആ ഷർട്ട് വേണേ ഷർട്ടായിട്ട് എടുക്കാം അതല്ലെങ്കിൽ മുറിച്ചുവേടിക്കുന്നെങ്കില് ഉണ്ടെങ്കില് കട്ടിയുള്ള തുണിയൂണ്ട് കട്ടി കുറവുള്ളതൂണ്ട് നമുക്ക് രണ്ടും യൂസേയ്യാം ഹാഫ് ആ പിന്നെ ഉണ്ടല്ലോ ഹാഫ് ഷർട്ടുണ്ട് ഹാഫ് ഷർട്ട് തയ്ക്കാനാണെങ്കില് രണ്ട് മീറ്റര് മതി നാല്പ്പത്തി നാല്പ്പത്തി നാലിഞ്ച് വീതി വരുന്നതാണ്

ഡബിൾ മുണ്ടുണ്ട് അപ്പോ കുപ്പടോമുണ്ട് സിംഗിളുണ്ട് കുപ്പടവും രണ്ടിൻറ്റെയും കുപ്പടം മുണ്ടുണ്ട് അല്ലാത്ത മോഡലുമുണ്ട് ആ ആ കുപ്പടത്തിൻ്റെ ഒറ്റ മുണ്ടൂണ്ട് ഒറ്റമുണ്ടുണ്ട് ഒറ്റമുണ്ട് വരുമ്പോള് എണ്ണൂറ്റിനാല്പ്പത് അങ്ങനെ ആ റേയ്റ്റ് വരും സ്റ്റാർട്ടിങ് പിന്നെ കുപ്പടത്തിൻ്റെ കുപ്പടത്തിൻ്റെ വൈറ്റും മുണ്ടാണെങ്കില് ആയിരത്തിഎഴുന്നൂറ്റി സംതിങ്ങാണ് വരുന്നത് അപ്പോള് നമുക്ക് അതിനകത്തുനിന്ന് ട്വൻറ്റി പേർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരും

ഒറ്റയുണ്ടല്ലോ അത് നമ്മള് തന്നെ ചെയ്യുന്നതാണ് അതാകുമ്പോള് ഒരു കമ്പ്ലൈൻറ്റൂല്ല ഡാമേജൊന്നും വരുന്നതല്ല വർഷങ്ങളോളം ഉപയോഗിച്ച് നല്ല റിസൾട്ടുകളുള്ളതാണ് നമുക്ക് ഫില്ലോയുണ്ട് ആ കുഷ്യനുണ്ട് ആ ഉണ്ടുണ്ട് ആ നാടന് പഞ്ഞി നമ്മള് തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം ധൈര്യത്തോടുകൂടി പറയാം ധൈര്യത്തോടെ നമുക്കു കൊടുക്കുകയും ചെയ്യാം കമ്പ്ലൈൻറ്റൊന്നും ഇതുവരെയും നമുക്ക് കമ്പ്ലൈൻറ്റ് വന്നിട്ടില്ല ഓക്കെ മാം